കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഴയ നൃത്തങ്ങളത്രതന്നെയങ്ങു കാണാനില്ല ഇപ്പോള് ഇപ്പോഴെന്ന് പറഞ്ഞാല് ഒട്ടും തന്നെ കാണാനില്ല പഴയ നൃത്തങ്ങള് ഇപ്പോള് വർഷത്തിലൊന്നോ രണ്ടോ തവണ കലോത്സവങ്ങളൊക്കെ വരുന്ന വേദികളിൽ മാത്രം അല്ലാതെ ഒരു സ്ഥലത്തുനിന്നുതന്നെ അങ്ങനെ കാണുന്നില്ല കൂട്തലായിട്ട് ഉണ്ട് നൂറിലൊരു ഇരുപത് ശതമാനമൊക്കെ കാണാറുണ്ട് പക്ഷെ എങ്കിലും പുതിയ മോഡേൺ ഡാൻസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് അത് അല്ലെങ്കില് എന്താ പറയുന്നേ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ ന്യൂ ജനറേഷൻ ഡാൻസുകൾ അല്ലാതെ നമ്മൾ ട്രഡീഷ്ണലായിട്ടുള്ള തിരുവാതിര കുച്ചിപ്പുടി ഭരതനാട്യം ഓട്ടന്തുള്ളൽ അങ്ങനത്തെ നൃത്തങ്ങളൊന്നും തന്നെ കാണാനില്ലിപ്പോള് ട്രഡീഷ്ണൽ ഡാൻസ് പഠിക്കുന്ന അനേകം കുട്ടികളുണ്ടായിരിക്കും ഇപ്പോഴും എന്നിരുന്നാലും കൂടുതലായിട്ടും മാറിയിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ ബ്രേക്ക് ഡാൻസിലോട്ടും ഫോക്ക് ഡാൻസിലോട്ടുമൊക്കെയാണ് പഴയ നൃത്തങ്ങളിപ്പോഴും പഠിച്ച് അരങ്ങേറ്റം നടത്തുന്ന ഓരോ കുട്ടികളുമുണ്ട് കാലിൽ ചിലങ്കകളണിഞ്ഞും ഒരു പോലത്തെ വസ്ത്രം ധരിച്ചും മേക്കപ്പിട്ടും എല്ലാം